സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ ഫ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അത് ഞാൻ കൂടുതലായും ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം എന്ന സാമൂഹ്യ മാധ്യമത്തിലാണ് ഞാൻ പോസ്റ്റുകൾ ചെയ്യാറ് കാരണം ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പോഴത്തെ തലമുറയിലെ ഏറ്റവും കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത് ഒരു ഉപയോഗിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമം എന്നാണ് ഞാൻ കരുതുന്നത് അത് എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്ന സമൂഹ മാധ്യമം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളുമാണ് എനിക്ക് കുറെ കാര്യങ്ങൾ അതിൽ കൂടെ ചെയ്യാവുന്നതാണ് അതുപോലെ ഞാൻ ഫോട്ടോകൾ അതിനകത്ത് ഇട് അതായത് സ്റ്റോറി എന്ന രീതിയിലും പോസ്റ്റ് എന്ന രീതിയിലും പോസ്റ്റ് ചെയ്യാറുണ്ട് കൂടുതലും സ്റ്റോറികളാണ് ഇടാറ് അതിൽ കൂടെ ആൾക്കാര്കൾ ഒരു ദിവസത്തിൻ്റെ സമയത്തിനുള്ളിൽ കാണാനുള്ള അവസരം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പോസ്റ്റുകൾ ഞാൻ എപ്പോഴും ഇടാറില്ല വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളു ഒരു പോസ്റ്റൊക്കെ ഇടും അന്നിട്ട് അത് കുറച്ച് പേര് ലൈക്ക് ആൾക്കാർ ഒക്കെ ലൈക്ക്ടിക്കുന്നതൊക്കെ കാണും ആ അത്രക്കെയെ ഉള്ളൂ പിന്നെ ഇൻസ്റ്റാഗ്രാം എനിക്ക് പല വേറെ ആൾക്കാരും പോയി കുറെ ഫോട്ടോസൊക്കെ പോയി പല എപ്പോഴും എന്നും പോസ്റ്റ് ചെയ്യുന്നവർ ഉണ്ട് ഫോട്ടോകൾ ഞാൻ പലപ്പോഴും എൻ്റെ തന്നെ പോ ഫോട്ടോകളാണ് പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ വേറൊരു അകൗണ്ടികൂടെ കൂടെ ഞാൻ പ്രകൃതി രമണീയമായ ഫോട്ടകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് പലതും പ്രകൃതിയെ ആസ്പദമാക്കി മലകളും പുഴകളും മേ മേഘങ്ങളും സന്ധ്യസമയങ്ങളിലുള്ള മേഘങ്ങളും ഒക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത് ഇതൊക്കെയാണ് എൻ്റെ ഫോട്ടോകൾ തമ്മിലുള്ള ബന്ധം